ഇപ്പം പൂന്തോട്ട പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും വിനോദവൃത്തിയായിട്ട് എടുക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ചെടി വെച്ച് അത് അതിൻ്റെ പൂവ് ഇട്ടുതരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ആണ് അപ്പം അതുകൊണ്ട് ഞാൻ നല്ല രീതിയിലുള്ള ഒരു വിനോദവൃത്തിയായിട്ട് എടുക്കാറുണ്ട് അപ്പം എനിക്ക് ഭയങ്കര കാണാൻ തന്നെ ഒരു രസമായിട്ടുള്ള ഒരു അവസ്ഥ ഒക്കെ ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ പ്രയോജനം എന്താണെന്ന് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് ഇത് പരിപാലിക്കുന്നത് അപ്പം അവൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചുകൊടുക്കുക വളം ഇട്ടുകൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അവളാണ് കൂടുതലായിട്ടും ചെയ്യാറ് അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം